ഞങ്ങളുടെ പ്രദേശത്തെ കലാമേഖലയും കരകൗശലമേഖലയും മറ്റു സംസ്ഥാന മേഖലകളെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് ഫാഷൻ ഡിസൈൻ മേഖലയാണെങ്കിലും പരസ്യം സിനിമ മറ്റ് ഏതൊരു മേഖല എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ മറ്റു സംസ്ഥാനത്തേയും മറ്റുള്ളവരേയും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് ഏതൊരു മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ആ മേഖല മറ്റു രാജ്യങ്ങളേയും മറ്റു സംസ്ഥാനത്തേയും മറ്റു സ്ഥലങ്ങളേയുമെല്ലാം എങ്ങനെയെല്ലാമാണ് സ്വാധീനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഈ ഈ മേഖലയൊക്കെ നോക്കിക്കാണുന്നതെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഫാഷൻ ഡിസൈൻ മേഖലയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളൊരു ഡ്രെസ്സ് ഡിസൈൻ ചെയ്തു ഒക്കെയാണെന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളിലും അത് അവയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ഫാഷൻ മേഖലയിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഡിസൈനുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് അവ വരുത്തുന്നത് അതിനനുസരിച്ച് അല്ലെങ്കിൽ അതുപോലെയൊക്കെ ആകാൻ നമ്മുടെ പ്രദേശത്ത് ഉള്ളവരും നമ്മുടെ ഫാഷൻ ലോകവും ഫാഷൻ ഡിസൈൻ മേഖലയും എല്ലാം വളരെയേറെ ശ്രദ്ധ ചെലത്തുന്നുണ്ട് സിനിമാ രംഗത്താണെങ്കിൽപ്പോലും നമ്മുടെ സംസ്ഥാനം മറ്റു സിനിമാമേഖലയിലെ അപേക്ഷിച്ച് അത്രത്തോളം തന്നെ ആവാൻ തന്നെ നോക്കുന്നുമുണ്ട് സിനിമാ മേഖലയിലാണെങ്കിലും നമ്മൾ ഒരുപാട് തന്നെ മുൻപന്തിയിലാണ് ഇന്ന് ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലേയും എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ സ്ഥലങ്ങളിലേയും ആ അവ ചെലുത്തുന്ന സ്വാധീനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ സിനിമാമേഖലയിലായാലും ഫാഷൻമേഖലയിലായാലും പരസ്യം മേഖലകളിലായാലും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഏതൊരു വ്യക്തിയുടേ ഇഷ്ടങ്ങൾക്കനുസരിച്ചും ഓരോരോ വ്യക്തികൾ കൂടിവരുന്ന ആ സമൂഹത്തിനനുസരിച്ചും ആ പ്രദേശത്തിനനുസരിച്ചും നമ്മളുടെ മേഖലകളെയെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യാനും മുൻപന്തിയിൽ എത്തിക്കാനും എന്തെല്ലാമാണ് ഓരോരുത്തർക്കും വേണ്ടത് അത് കണ്ടറിഞ്ഞ് ആ രീതിയിലേക്ക് എത്തിക്കാനും നമ്മുടെ ഏതൊരു മേഖലയും ശ്രമിക്കുന്നുണ്ട് ഫാഷൻ മേഖലയാണെങ്കിലും സിനിമാ മേഖലയാണെങ്കിലും എല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളെയും എല്ലാം സംസ്ഥാനങ്ങളേയും എല്ലാ മേഖലകളേയും നോക്കിക്കണ്ട് അവക്ക് അനുയോജ്യമായത് നോക്കി അവയ്ക്ക് അനുയോജ്യമായിത്തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് കൊടുക്കാൻ വേണ്ടിത്തന്നെ എല്ലാ പ്രദേശമേഖലകളെയും നമ്മൾ നോക്കിക്കാണുകയും അത് അനുസരിച്ച് പിൻ പറ്റുകയും മുന്നോട്ട് വഹിക്കുകയും ചെയ്യുന്നുണ്ട്